ആ ഹലോ ഷീലയാണോ മേരി മാതാ ഫിഷ് മാർക്കറ്റാണോ എന്തൊക്കെ മീനൊക്കെയുണ്ടവിടെ

ഉം ഉം വറ്റക്കെന്നാ വില വറ്റക്കും മാച്ചാനൊക്കെയെന്നാ വില ഭയങ്കര വിലയാണോ

നാന്നൂറ്റൻപത് എനിക്ക് എനിക്ക് രണ്ട് കിലോ വറ്റ വേണമായിരുന്നു ആ കസ്റ്റമർ വല്ല കസ്റ്റമർ വല്ലവരുമുണ്ടോ ഇങ്ങോട്ടു കൊടുത്തു വിടാനായിട്ടാരെങ്കിലും ആ ഇങ്ങോട്ട്

ആ ആ മതി മതി മതി അപ്പോഴത്തേക്ക് കൊടുത്തു വിട്ടാലും മതി അറിയേ വില എങ്ങനെയാണ് വില കൊടുക്കണോ അതോ ഏ ഏ

ആ കൊടുക്കാം കൊടുക്കാം കൊടുക്കാം ആ കുഴപ്പമില്ല കുഴപ്പമില്ല കൊടുത്തോളാം രണ്ടു കിലോ

ഓ ശരി ശരി എളുപ്പം വീട് കരുവറ്റയിലാണ് ആ ആ പവർ ഹൗസിൻറ്റിപ്പുറം വഴിയമ്പലത്തിൻ്റടുത്തു വരും വഴിയമ്പലം പയ്യൻ പയ്യനോടീ റൂട്ട് പറഞ്ഞു കൊടുത്താൽ മതി ഉം ആ ആ ആ ആ തോന്നതെ അതെ പയ്യൻ വന്നിട്ടുണ്ടപ്പാ റൂട്ട് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ ആ ആ ഉണ്ടെങ്കിൽ കായൽ മീൻ കായ കായൽ മീനെന്തൊക്കെ എന്തൊക്കെയുണ്ട് ഞണ്ടൊക്കെയാണ് കരിമീൻ കരിമീനെങ്ങനെയാണ് വില വില കൂടുതലാണ് കരിമീൻ ആ ഓ ഹോ എന്നു കരിമീനോ ആ എന്നാൽ പിന്നതിവിടെ ഒരു രണ്ട് കിലോ കൊടുത്തു വിട്ടേരേ

ആ വൃത്തിയാക്കണം വൃത്തിയാക്കണം വൃത്തിയാക്കണം വൃത്തിയാക്കണം ആ ഓ ശരി ശരി കൊടുത്തു വിട്ടേക്കാം കൊടുത്തു വിട്ടേക്കാം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ കൊടുത്തു വിട്ടാൽ മതി ഓക്കെ ഓക്കെ അതിൻ്റെ റേറ്റും കൊടുത്തു വിട്ടേക്കാം